വളരെ പ്രതീക്ഷയോടെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഉള്ളൊരു ഒരു ഉൽപ്പന്നമായിരുന്നു അത് എനിക്ക് എൻ്റെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാനത് വാങ്ങിച്ചിട്ടുള്ളത് പക്ഷേ വളരെ എന്താ പറയുക നമുക്ക് ഒട്ടും യൂസർ ഫ്രണ്ട്ലി അല്ല വളരെ സ്ലോ ആയിരുന്നു പക്ഷേ ചാർജ് പെട്ടെന്ന് ഇറങ്ങും അതിങ്ങനെ ലോഡ് ആകാൻ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി കുറെ നേരം നിൽക്കുക വലിയ കാണാൻ വലിപ്പമുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനം വളരെ എന്താ സ്ലോ ആയിരുന്നു അപ്പോൾ നമുക്ക് തോന്നും ഇതിലും ചെറുത് വാങ്ങിയാൽ മതിയായിരുന്നു ഇത് മേടിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടും ഇല്ല നമ്മള് ഇതിൻ്റെ സർവീസിനായിട്ട് പോയി ചെന്നപ്പോഴാണെങ്കിലും നമ്മളെ അങ്ങോട്ടുമിങ്ങോട്ടും തട്ടി കളിക്കുന്ന ഒരു ഇതായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പൈസക്ക് ഈ ഒരു ഗാഡ്ജറ്റ് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ പൈസക്ക് നല്ല വേറെന്തെങ്കിലും വാങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഉപയോഗപ്പെടുമായിരുന്നു